നിരവധി കഷ്ടപ്പാടുകളിലൂടെയും പോരാട്ടത്തിലൂടെയുമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ന് ഈ രൂപത്തിലേക്ക് മാറിയത് രാജ്യം നിരവധി പോരാട്ടങ്ങൾ നടത്തിയിരുന്നു ചരിത്ര നിമിഷങ്ങൾ തോന്നുന്ന കുറേ സംഭവങ്ങൾ ഇതിൽ കാണാൻ കഴിയും ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ള കുറേ നിരവധി അനേകം സമരങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ന് പ്രമുഖ നേതാക്കന്മാരായ മഹാത്മ ഗാന്ധിജിയെപ്പോലുള്ള നിരവധി നേതാക്കന്മാർ നമുക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചും സഹനത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് അത് കാരണമെന്താണ് ഇന്ന് നാം എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള അഭിമാനത്തിൽ നാം ജീവിക്കുന്നു ഒരേ ഓരോ വ്യക്തിയും ഇന്ത്യനാണെന്നുള്ള ഇന്ത്യൻ പൗരം സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടെ മുന്നേറാൻ കഴിയുന്നതായി കാണാൻ സാധിക്കും